ആ പറഞ്ഞോളൂ ഏത് ടൈപ്പ് പൂവാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തിന് വേണ്ടിയിട്ടുള്ളതാണ് പൂ ഇപ്പോൾ കല്യാണ പെണ്ണിനെ ചൂടിക്കാനുള്ളതോ അതെ കല്യാണ പെണ്ണിന് ചൂടാനുള്ളതോ ഡെക്കറേഷനോ ആ

അതിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടിപ്പം നിങ്ങൾക്ക് ഈ ചെണ്ടുമല്ലി വേണോ അതോ പിന്നെ ജമന്തി പൂ വേണോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതെയോ എന്നാൽ പിന്നെ ഡെക്കറേഷന് നിങ്ങൾക്ക് ജമന്തി പൂ എടുക്കാം പെൺകുട്ടിക്ക് ചൂടാനുള്ള പൂവും ആവശ്യം ഉണ്ടല്ലോ ആ ആ അത് മുല്ലപ്പൂ ഉണ്ട് ബൊക്കെ റോസിൻ്റെ ബൊക്കെ വേണോ അതൊ അല്ലോ ഏ ഏത് ബൊക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടത് മുല്ലപ്പൂവിൻ്റെ ബൊക്കെ വേണോ അല്ല റോസിൻ്റെ ബൊക്കെ വേണോ ഏതാണ് വേണ്ടത് ആ മുല്ലപ്പൂ റോസും മിക്സ് ആയിട്ടാണ് വരുന്നുള്ളത് മറ്റേ ഇത് റോസിൻ്റെ മാത്രം ബൊക്കെ ആണെങ്കിൽ അതിന് റേറ്റ് കുറച്ച് കൂടും പിന്നെ നിങ്ങൾക്ക് കല്യാണ മാല ആവശ്യം ഉണ്ടോ അത് ഇപ്പോളത്തെ ട്രെൻഡ് പനീർ പൂവിന്റേതയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് വരുന്നത് അതാണാവശ്യം അതെങ്കിൽ അതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അഡ്വാൻസ് നിങ്ങൾ പേ ചെയ്തിട്ട് ബുക്ക് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി റേറ്റ് ഈ മുല്ലപ്പൂവിന് മുഴത്തിന് ഒരു നൂറ്റിയമ്പത് രൂപയോളം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് എടുത്തോളൂ

ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ശരി